പി ടി ഉഷയെ പറ്റി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും കാരണം അവരെ പോലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അത്രയും ഉന്നതിയിലേക്കു വന്നൊരു കായിക പ്രതിഭ ഇന്ത്യയിൽ വേറെ ഉണ്ടാകുമോയെന്ന് അറിയില്ല അവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കോഴിക്കോടാണെന്നാണ് എൻ്റെ ഓർമ്മ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിൽ വരെ സ്പോർട്സ് കൈ മുതലാക്കി എത്തിയ ഒരു ധീര വനിതയാണ് ആ കാലഘട്ടത്തിൽ പി ടി ഉഷയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഓടി തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വളരെ വളരെ പരിമിതമായിരുന്നു ഇന്നത പോലത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസോ അതൊന്നും ട്രാക്കിങ് ഫീൽഡോ അങ്ങനെ ഒന്നുമില്ല അന്നത്തെ കാലത്തും ഇത്രയും മനോഹരമായിട്ടു പരിശ്രമിച്ചു സ്പോർട്സിൻ്റെ ഔന്ന്യത്തിലേക്കെത്തിയ വരു വളരെ വളരെ ചുരുക്കമാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് എനിക്കും അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഒത്തിരി ഏറെ പഠിക്കാനുണ്ട് പ്രത്യേകമായിട്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം അവർക്ക് അവരുടെ മുമ്പിലുണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസ് പോലെ അല്ലെങ്കിൽ ഒളിമ്പിക്സ് അല്ലെങ്കിലീ സ്പോർട്സിലെ ഏറ്റവും മുകളിലെത്തണം എന്നുള്ളൊരാഗ്രഹം അതു ദൃഢമായിട്ടുള്ളൊരു ആഗ്രഹമാണത് അത് അച്ചീവ് ചെയ്യുന്നതു വരെ ആ ആഗ്രഹ പൂർത്തിക്കായിട്ട് അവർ പരിശ്രമിച്ചു നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ അതിപ്പോൾ സ്പോർട്സായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് ആ അതിൻ്റെ അങ്ങേ അറ്റം വരെ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് അതിനകത്ത് ഈ കുടുംബ പശ്ചാത്തലം നമുക്ക് നമ്മളതിനകത്തു നിന്നും പിന്നോട്ടു വലിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി നിർത്തി ഏക ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു അപ്പം അങ്ങനെ പരിശ്രമിക്കുന്ന ഒരാൾക്ക് അവരുടെ മുമ്പിൽ വേറെ ഒരു തടസ്സങ്ങളൊന്നും നിൽക്കില്ല കാരണം ഒരു ദിവസം അവരത് പൂർത്തീകരിക്കും എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ തന്നെ വലിയ പാഠമാണ് ഇങ്ങനെയൊക്കെ വലിയ പാഠങ്ങൾ ഈ വനിതയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അതു നമുക്ക് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പം പ്രത്യേകിച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞുങ്ങളോട് ഈ ഇതു പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും അവർ അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കാം ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഓടിയത് അങ്ങനെ ഓടുമ്പോൾ അവരുടെയും അവരുടെ ആ പല പല പേഴ്സണൽ ലൈഫിൻ്റെ പല കാര്യങ്ങളുമവർ മാറ്റി വെച്ചിട്ടുണ്ടാകാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം വേണ്ടെന്നു വെച്ചിട്ടുണ്ടാകാം എന്തിനു വേണ്ടി ആണ് ഈ അവരുടെ മുമ്പിലൊരു വലിയ മഹത്തായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ നോക്കി ഓടിയത് കൊണ്ടാണ് അവരെ ഇന്നും നമ്മളോർക്കുന്നതും അവരിന്ന് ഈ പൊസിഷനിലായിരിക്കുന്നതും ഇന്നത്തെ ഈ ഈ ഒരു ക്വസ്റ്റിയൻ അവർക്കു വേണ്ടി ചോദിക്കപ്പെട്ടതും അപ്പോൾ ഒരു സ്പോർട്സ് മേഖലയിൽ ഇപ്പം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ചെയർപേഴ്സണായിട്ട് അവർ ഇപ്പോൾ ഇരിക്കുന്നതും അലെങ്കിൽ ഇന്ത്യൻ പാർലമെൻ്റിലെ ഒരു എം പി ആയിട്ടിരിക്കുന്നതും ഒക്കെ അവരുടെ ആ മഹത്തായ പ്രയത്നത്തിൻ്റെ സ് ഒരു ഒരു ഒരു പ്രതിഫലനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സിനോട് താല്പര്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കിതു വളരെ സഹായകരമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരു കാലത്ത് പിന്നോട്ടു നോക്കുമ്പോൾ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പി ടി ഉഷയെ പറ്റി അല്ലെ മറ്റുള്ളവരെ പറ്റി പറഞ്ഞത് കൊടുത്തു കൊണ്ടാണ് മഹാൻ മഹാന്മാരായ സ്പോർട്സ് പ്രതിഭകളെ പറ്റി കുഞ്ഞുങ്ങൾക്കു പറഞ്ഞത് കൊടുത്തതു കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും